ഞാൻ എൻ്റെ കാമറ ഉപയോഗിച്ച് റീലുകളും ഹസ്ര്വചിത്രങ്ങളും പകർത്താറുണ്ട് അത് നോർമൽ നമ്മൾ ചിത്രം പകർത്തുന്നതിൽ വളരെ വ്യത്യാസമാണ് കാരണം നോർമൽ ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് നമ്മൾ ഒരു വസ്തുവിനെ സൂമും ഫോക്കസുമൊക്കെ വച്ച് അങ്ങനെ എടുക്കുന്നതാണ് നമ്മുടെ ക്യാമറകളിലെ ഫോട്ടോഗ്രഫി എന്നാൽ റീലുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഫോട്ടോഗ്രാഫി വ്യത്യാസമാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫോക്കസ് ആവശ്യമാണ് എന്നാലും ഫോട്ടോഗ്രാഫിയുടെ ബാക്കിയുള്ള കണ്ടൻസും നോക്കണ്ട ആവശ്യമില്ലാത്ത സാധനമാണ് അതുകൊണ്ട് നമ്മൾ ഫുൾ ആൾ ഫ്രെയിം പെടുന്നുണ്ടോ അതുപോലെ ആളുടെ എക്സ്സ്പ്രെഷൻസ് എല്ലാം നമുക്ക് പകർത്താൻ പറ്റുന്നുണ്ടോ അതുപോലെ ആളുടെ മൂവ്മെന്റ്സ് എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി